ഇന്ന് കേരളം നേരിടുന്ന വലിയ ഒരു പ്രശ്നമാണ് കാർഷിക വ്യവസായത്തിൻ്റെ പ്രശ്നം നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും കൃഷിയുമായി ബന്ധപ്പെട്ടിരുന്ന വ്യവസായങ്ങളിന്ന് കേരളത്തിൽ വളരെ വിരളമാണ് കേരളം ഒരു കാർഷിക അഭിവൃദ്ധിയുള്ള ഒരു സംസ്ഥാനം ആണെങ്കിൽ കൂടി കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യവസായങ്ങൾ ഇന്ന് വളരെ കുറവാണ് ഇതിനുള്ള പ്രധാന കാരണം നമ്മൾ വ്യവസായങ്ങൾ മായി ബന്ധപ്പെട്ട് തുടങ്ങുന്ന പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളുമാണ് ഉദാഹരണമായിട്ട് ഒരു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വ്യവസായം നമ്മുടെ സംസ്ഥാനത്ത് തുടങ്ങുകയാണെങ്കിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പറഞ്ഞ് അതിന് അനുമതി കൊടുക്കാതിരിക്കുകയും അതുപോലെത്തന്നെ അതിന് ചുറ്റുവട്ടത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെ പരിസ്ഥിതിയെ നല്ല രീതിയിൽ ബാധിക്കും എന്ന് പറഞ്ഞ് ഇതിന് അനുമതി കൊടുക്കാതിരിക്കുകയും ആണ് ചെയ്യുന്നത് ഇതെല്ലാം ഒരുതരത്തിൽ ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യവസായത്തിന് ഗുണം ചെയ്യാത്ത ഒരു പ്രവർത്തനമാണ് നല്ല രീതിയിൽ ഇത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഇന്ന് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യവസായവും കൃഷിക്കും ഇത് വളരെയധികം ഗുണം ചെയ്യും ഉദാഹരണമായിട്ട് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ കർഷകർ ഇന്ന് ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാൻ പറ്റിയ ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ വിപണന കേന്ദ്രം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല കേരളത്തിൽ ഇടനിലക്കാരാണ് കർഷകരെ കൂടുതലായിട്ട് ചൂഷണം ചെയ്യുകയും അവരുടെ ഉത്പ്പന്നങ്ങൾ മറിച്ച് മറ്റു സംസ്ഥാനങ്ങളിൽ എത്തിക്കുകയും അവിടുത്തെ വ്യവസായങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ വിൽപ്പന നടത്തുകയും ചെയ്യുന്നത് ഇന്ന് കേരളത്തിലുള്ള കർഷകർക്ക് നല്ല രീതിയിലുള്ള വിലയോ അല്ലെങ്കിൽ നല്ല ഒരു ഉ ഉത്പന്നത്തിനുള്ള ഒരു ഗുണമേന്മയുള്ള ഒരു വില ഇന്ന് ലഭിക്കുന്നില്ല ഇത് ഈ കാർഷിക വ്യവസായത്തിന് വളരെയധികം ബാധിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ കർഷകർ ഈ കാർഷിക വ്യവസായത്തിന് അനുയോജ്യമായിട്ടുള്ള കൃഷിയിൽ നിന്നും പിൻതിരിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്തെ കാർഷിക അല്ലെങ്കിൽ കർഷിക വ്യവസായവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ കുറവാണ്